ഹലോ ആരാ ഇത് ആ ഒരു മാരുതി സ്വിഫ്റ്റ് ആണോ ആ അത് ഞാൻ ഇന്നലെ വെച്ചത് അപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ആ അതിൻ്റെ ബേക്കിൽ കുറച്ച് പെയിൻറ്റ് പോയിട്ട് ഉണ്ട് പിന്നെ ബ്രേക്കും കുറച്ച് കമ്മിയാ ഒന്ന് നോക്കണം ആ അത് ഒന്ന് തട്ടിപ്പോയിന് ആത് വീട്ടിൽനിന്ന് അത് ആപ്പൻ്റെ മകൻ എടുത്തിട്ട് പോയതാ അങ്ങനെ തട്ടിപ്പോയതാ

വേറെ പ്രത്യേകിച്ച് പ്രശ്നം ഒന്നും ഇല്ല പിന്നെ ഒരു കരകരപ്പ് പോലെ ഉണ്ട് ആ അത് കുന്ന് എല്ലാം കേറുമ്പോൾ ഒക്കെ അങ്ങനെ കരകരപ്പ് കാണാം പുറം ഭാഗം ബേക്കിൽനിന്ന് ചെറിയ ഒരു ഇളക്കം പോലെ ഉണ്ട് എനിക്ക് തോന്നുന്നത് എഞ്ചിൻ്റെ പ്രശ്നം ആയിരിക്കുമെന്നാ തോന്നുന്നത് അത് മെയിൻ റോട്ടിൽനിന്ന് ഒരു ചെറിയ ഒരു ബൈക്ക് ആയിട്ട് തട്ടിയതാണെന്നോ മറ്റോ പറയുന്നത് ചെറിയ പെയിൻറ്റ് പോയതിൻ്റെ പ്രശ്നം ഉണ്ടായുള്ളൂ പക്ഷെ വണ്ടിക്ക് ഒരു കരകരപ്പ് സൗണ്ട് ഉണ്ട് ഇപ്പോൾ എടുക്കുമ്പോൾ പിന്നെ എഞ്ചിൻ ഓയിലിൻറ്റേതിൽ ഒന്ന് ചെക്ക് ചെയ്തേക്ക് അല്ല അത് ഒന്ന് ചെക്ക് ചെയ്യണം എന്തായാലും ആ പിന്നെ പെയിൻറ്റിൻ്റെ നിങ്ങളു തന്നെ ചെയ്തോ ആ എന്നാൽ നിങ്ങൾ ചെയ്തോ നോക്കി ചെയ്തോ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലം ആയി ആ ഇനി അടുത്ത സർവീസ് രണ്ട് മാസം കഴിഞ്ഞിട്ട് അല്ല അടുത്ത കൊല്ലമാ ഉള്ളത് ആ ടെസ്റ്റ് ചെയ്ത് വെയ്ക്കാം ആ ഇല്ല അത് ഇല്ല ആ ഇപ്പോൾ നിങ്ങൾ ഇത് ചെയ്താൽ മതി പെയിൻറ്റ് വർക്കും പിന്നെ ബൈക്കിൻ്റെ ഇതും നോക്കിയാൽ മതി അപ്പോൾ പൈസ എത്രയാ ആവുക ആ എന്നാൽ നോക്കി വിളിച്ചോ ആ ശരി ശരി